ഞങ്ങടെ സ്കൂളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രപ്പുരകളൊക്കെ എന്താ പറയുക പറ്റേ അബദ്ധമാണ് കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വെള്ളം പോലും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മുടെ സ്കൂളിലൊക്കെ ഉള്ളത് കാട്ടിക്കുണ സ്ക്കൂളിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ അവിടെ ബാത്ത് റൂമിൽ പോയാൽ പോലും വെള്ളമില്ല അപ്പം വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത് സ്ക്കൂളുകളിലെ മൂത്രപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാസ്ക് ഒക്കെ ഇട്ടിട്ടേ അവിടെ കയറാനൊക്കെ പറ്റുകയുള്ളൂ പിന്നെ വെള്ളം കുടിവെള്ളം എന്ന് പറഞ്ഞ സംഭവമേ അവിടെ ഉണ്ടാവില്ല കൈ കഴുകാൻ പോലും മര്യാദയ്ക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് വെള്ളം എന്താ പറയുക വൃത്തി ഇല്ലാത്ത വെള്ളമാണ് വരുന്നത് പിന്നെ പുസ്തകങ്ങൾ ആവശ്യത്തിനുണ്ട് പക്ഷെ നമുക്ക് ക്യാഷ് കൊടുത്താലാണ് പുസ്തകങ്ങൾ കിട്ടുകയുള്ളൂ മേശയും കസേരയും കുഴപ്പമില്ല നല്ല മേശയും കസേരയും ആണ് ഉള്ളത് പക്ഷെ അതിനകത്തും ചിലതിൽ എന്താ വച്ച് കഴിഞ്ഞാൽ കാലൊടിഞ്ഞ മേശയും കാലൊടിഞ്ഞ എന്താ പറയുക സ്റ്റൂളും ബെഞ്ചും കസേരയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അതിലൊക്കെ ഇരുന്ന് പഠിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണുള്ളത് ഇങ്ങനയൊക്കെയാണ് നമ്മുടെ സ്കൂളുകളിലെ അവസ്ഥ മെയിൻ ആയിട്ട് ബാത്ത് റൂം വളരെ മോശമായിട്ടാണുള്ളത് പിന്നെ ഒന്നാമത് പിള്ളേര് നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെയുണ്ട്